ഇപ്പോൾ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട നടൻ എന്നൊക്കെ പറയുമ്പോൾ വിനീത് ശ്രീനിവാസനാണ് ആൾ ഒരു നടൻ എന്നതിലുപരി നല്ലൊരു നല്ലൊരു നന്നായി പാട്ട് പാടുന്ന ഒരാളാണ് അതേപോലെത്തന്നെ മൂവീസൊക്കെ ഡയറക്ട് ചെയ്തിട്ടുണ്ട് അത്രയും അടിപൊളിയാണ് പുള്ളിയെന്നു പറയുമ്പോൾ ആളുടെ ക്ലാസ്സ്മേറ്റ്സിലെ എൻ്റെ ഖല്ബിലെ എന്നൊക്കെ പറയുന്ന സോങ്ങ്സൊക്കെ ഭയങ്കര അടിപൊളിയാണ് നമ്മൾ കേട്ട് ഇരുന്നുപോവും ഇപ്പോൾ ആൾ ഡയറക്ട് ചെയ്ത മൂവി ഹൃദയം എന്നു പറയുന്നതാണെങ്കിലും പ്രണവ് മോഹൻലാൽ ഒക്കെക്കൂടി അഭിനയിച്ച ഒരു സിനിമയാണ് വളരേ സൂപ്പർഹിറ്റായ ഒരു മൂവി തന്നെയാണത് ഇപ്പോൾ ഒത്തിരി ഫാൻസുള്ളൊരാളാണ് വിനീത് ശ്രീനിവാസൻ എന്നു പറയുമ്പോൾ ഞാൻ മാത്രമല്ല ഇപ്പം എന്താ പറയുക ഇന്ത്യ ഒട്ടാകെ എന്നൊക്കെ പറയാം അത്രയും അടിപൊളി നടനാണ് ഒരു സംഗീത സംവിധായകനാണ് അതേപോലെതന്നെ മൂവി ഡയറക്ടർ ആണ് എല്ലാം കൊണ്ടും ഒരു അഭിനേതാവാണ് പുള്ളിയുടെ മൂവീസൊക്കെ ഭയങ്കര അടിപൊളിയാണ് സെറ്റാണെന്നൊക്കെ പറയാം ആളിപ്പോൾ നേരിട്ടിങ്ങനെ നമുക്ക് കാണാനാവസരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെയൊരു അവസരമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആളുടെ കൈയ്യിൽനിന്നൊരു ഓട്ടോഗ്രാഫ് മേടിക്കാനും ആളുടെ ഒരു പാട്ട് കേൾക്കാനും ഒക്കെ നല്ലൊരു ആഗ്രഹമുണ്ട് നടക്കുമെന്ന് വിചാരിക്കുന്നു